ഹലോ കേക്ക്സ് ആൻഡ് ഗെയിംസ് അല്ലേ ആ ഞാൻ ഇന്നലെ സ്വിഗ്ഗിയിൽ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്ത സമയത്തിലേ എനിക്ക് വന്ന ബില്ലിനകത്ത് ഒരു ഓഫർ പറയുന്നുണ്ടായിരുന്നു ടെൻ പെർസെൻറ്റേജ് പത്ത് ശതമാനം ഡിസ്കൗണ്ടിനെക്കുറിച്ചൊരു ഓഫർ പറയുന്നുണ്ടായിരുന്നേ അപ്പം ഞാനിന്ന് അടുത്ത കുറച്ച് ഫുഡുകൾ ഓർഡർ ചെയ്യാനായിട്ട് വിളിച്ചതാണേ അപ്പോൾ അതിനകത്ത് ഞാൻ ഓർഡർ ചെയ്യുന്ന ഫുഡിൻ്റെ വിലയെല്ലാം നോക്കിയിട്ട് പത്ത് ശതമാനം കുറച്ച് കുറച്ചിട്ടുള്ള എമൗ എത്രയാണ് ക്യാഷ് ഞാൻ ഗൂഗിൾ പേ വഴി ഞാൻ ചെയ്യാം അപ്പോൾ അത് എത്ര ചെയ്യണം എന്നുള്ളതൊന്ന് കണക്ക് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞാൽ ഒന്ന് പറയണമായിരുന്നു എനിക്ക് വേണ്ട ഫുഡ് എന്ന് പറയുന്നതൊരു ഒരു ഹാഫ് കുഴിമന്തി വേണം പിന്നെ പിന്നെ വന്നിട്ട് പിന്നെ വന്നിട്ട് പ ഒരു പത്ത് പതിനഞ്ച് പൊറോ പതിനഞ്ച് പൊറോട്ട ഒരു മട്ടൺ സ്റ്റൂ പിന്നെ ചിക്കൻ സിക് സിക്സ്റ്റി സിക് സിക്സ്റ്റി ഫൈവ് വേണാ അത്രയും വേണമായിരുന്നു പിന്നെ പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈയും ഫ്രൈയും എടുക്കണമായിരുന്നു അതെല്ലാം കൂടെ നോക്കിയിട്ട് എത്ര എത്ര രൂപയാകും എന്നുള്ളതൊന്ന് പറയണേ ഈ പത്ത് ശതമാനം ഡിസ്കൗണ്ടും കൂടെ കുറച്ചിട്ട് വേണമായിരുന്നേ അത് ചെയ്തുതരാൻ ചെയ്തുതരാനായിട്ട് അപ്പോൾ എനിക്ക് കൊണ്ടുവരേണ്ട ലൊക്കേഷൻ ഞാൻ അയച്ചുതരാം അതുപോലെ ഒരു വണ്ണ വൺ അവർ ഒരു മണിക്കൂറിലൊന്ന് റെഡി ആക്കി തരണം